കഴിഞ്ഞ ഒരു പത്തു വർഷങ്ങളായിട്ട് ഇന്ത്യയ്ക്കുണ്ടായ വളർച്ച അത്ര ചെറുതൊന്നുമല്ല ഭയങ്കര നല്ല രീതിയിലാണ് ഇന്ത്യ വളർന്നിരുന്നത് പ്രത്യേകിച്ച് ഈ ഡിജിറ്റൽ ബാങ്കിങ്ങ് അഥവാ യു പി ഐ പേയ്മെൻറ്റ് അങ്ങനത്തെ ഈ സേ പരിപാടികൾ കൊണ്ടുവന്നത് ലോകത്തെ തന്നെ ഞെട്ടിച്ചൊരു കാര്യമായി മാറിയിരിക്കുകയാണ് ഡിജിറ്റൽ ബാങ്കിങ്ങിൽ ഏറ്റവും കൂടുതൽ ട്രാൻസക്ഷൻസ് നടക്കുന്നൊരു രാജ്യമായിട്ട് നമ്മുടെ ഇന്ത്യ മാറി ഈയിടെ തന്നെ റഷ്യൻ പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡൻറ്റും എല്ലാവരും ഇതേപോലെ നമ്മുടെ ഇന്ത്യ കാണാനായിട്ട് വന്നിരുന്നപ്പോൾ അവർ ഈ ഡിജിറ്റൽ പേയ്മെൻറ്റ് അഥവാ യു പി ഐ പേയ്മെൻറ്റ് കണ്ട് അമ്പരക്കുന്ന വീഡിയോകൾ ഭയങ്കര വൈറലായിരുന്നു അവരുടെ നാട്ടിൽപോലും ഇത്രയും ഇത്രയും വളർന്ന നാടുകളായ റഷ്യയും അമേരിക്കയിലും പോലും ഇത്ര സിമ്പിളായിട്ട് പേയ്മെൻറ്റ്സ് നടത്താനുള്ള വേറൊരു സെറ്റ് അപ്പ് ഇതുവരെയില്ലയെന്നു പറയുമ്പോൾ അത് ഇന്ത്യയ്ക്ക് വളരെ വലിയൊരു വളർച്ച തന്നെയാണ് അതുമാത്രമല്ലാണ്ട് നല്ല രീതിയിൽ ബാക്കി സ്ഥലങ്ങളിലും ഡെവലപ്പ്മെൻറ്റ്സ് ഭയങ്കര രീ നല്ല രീതിയിൽ നടക്കുന്നു അപ്പോൾ കേരളത്തിലെ തന്നെ ഹൈവേ നാഷണൽ ഹൈവേ അറുപത്താറ് ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ വളരെ വേഗതയിലാണ് നിർമ്മാണം നിർമ്മാണം നടക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തിയിരുപത്തഞ്ചോടെ അത് മൊത്തം പൂർത്തിയാകുമെന്നാണ് പറയുന്നത് അതു വളരെ വലിയൊരു നേട്ടമായിട്ടാണ് കാണേണ്ടത് ഇത്രയും കാലം മുന്നേവരെ ഇപ്പോൾ ട്രിവാഡ്രം മുതൽ എറണാകുളം വരെ എത്താൻ ആറ് ഏഴ് മണിക്കൂർ വേണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഈ ഹൈവേ വന്നുകഴിഞ്ഞാൽ ഏറെ പോയാൽ ഒരു മൂന്നുമണിക്കൂർ അഥവാ നാലുമണിക്കൂർ ധാരാളമായി തീരും ഇത്രയും വലിയൊരു സെറ്റ് അപ്പ് വരുന്നതോടെ ഇതിൻ്റെ ഭാഗമായിട്ട് ടോളുകൾ വരുന്നുണ്ട് ടോളുകൾ ഈ റോഡുകളിൽ വരുന്നു പക്ഷെ എന്നാൽപോലും ആ ടോളുകൾ നമുക്ക് ടോളുകളിൽ നമ്മൾ അടയ്ക്കുന്ന പൈസ നമുക്ക് ഇന്ധനം ചിലവ് കുറയുന്നതിൽ വെച്ച് ടാലിയായി പോകുന്നതാണ് കാരണം ഇത്രയും നല്ല റോഡ് വരുമ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വണ്ടിയുടെ ഇന്ധനം കുറച്ചുപയോഗിച്ചാൽ മതി വണ്ടിക്ക് അപ്പോൾ അത്രയും കൂടി ലാഭം നമുക്കവിടെ ഇന്ധനത്തിൽ വരുമ്പോൾ അത് നമ്മൾ ടോളായിട്ട് അടയ്ക്കുന്നുവെന്നേ വരുന്നുള്ളു അപ്പോൾ അവിടെ പോലും നല്ലൊരു നേട്ടമാണ് കാണുന്നത് അപ്പോൾ ഇനിയും വരും വർഷങ്ങളിൽ ഇന്ത്യ വളരെ വലിയൊരു സ്ഥലത്തേക്കെത്തുമെന്നു പ്രതീക്ഷിക്കുന്നു